നമ്മുടെ കുട്ടികൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരു രോഗമാണ് വയർ ഇളക്കം ഇതിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം കടും ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് അതിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് നന്നായി പഞ്ചസാരയുമിട്ട് കൊടുക്കുക അത് നല്ല ഒരു മരുന്നാണ് പിന്നെ ഉള്ള ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ കടുക് ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ ഒരു സ്പൂൺ കടുകിട്ട് വറക്കുക നന്നായി വറുത്ത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആ വെള്ളം തിളച്ച് വറ്റി അര ഗ്ലാസാകുമ്പോൾ അരിച്ച് എടുത്ത് അതിന് അകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുടിക്കാൻ കൊടുക്കുക ഇത് നല്ല ഒരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മൾ കറികൾക്ക് ചേർക്കാൻ എടുക്കുന്ന ഉലുവ ഉണങ്ങിയ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചുടുമ്പോൾ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഉലുവയിട്ട് നന്നായി വറക്കുക അത് വറുത്ത് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആ വെള്ളം നന്നായി തിളച്ച് വറ്റി അര ഗ്ലാസ്സാകുമ്പോൾ അരിച്ചെടുത്ത് പാകത്തിന് മധുരവും ചേർത്ത് കുടിക്കാൻ കൊടുക്കുക ഇതും വയർ ഇളക്കം നിൽക്കാൻ നല്ല ഒരു മരുന്നാണ് ഇതൊക്കെയാണ് സാധാരണ അമ്മമാർ നമ്മുടെ കുട്ടികൾക്ക് വയർ ഇളക്കം ഉണ്ടാവുമ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ ഇത് ഒക്കെ കൊടുത്തിട്ടും കുറവുണ്ടായില്ല എങ്കിൽ മാത്രമേ നമ്മുടെ അമ്മമാർ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടാകാ കൊണ്ടു പോകാറുള്ളു